ഹലോ കൂട്ടുകാരേ അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് എ ബി സി ഹോം തിയറ്ററിനെ കുറിച്ചുള്ള ഒരു പ്രൊഡക്ട് റിവ്യൂ ആണ് അപ്പോൾ ഈ എ ബി സി ഹോം തിയറ്റർ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് സ്പീക്കേർസ് സ്പീക്കേർസിനും വൈഡ് റേഞ്ച് ഓഫ് സൗണ്ട് ക്വാളിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടും സറൗണ്ടഡ് സൗണ്ട് തരുന്നുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് സൗണ്ട് സെറ്റിങ്ങ്സ് ഒരുപാട് ഇതിൽ ഉണ്ട് നമുക്ക് മ്യൂസിക് ക്വാളിറ്റീസ് ആണെങ്കിലും ഇക്വിലൈസേഴ്സ് ഇൻബിൽറ്റ് ഇക്വിലൈസർ ഇതിൽ വരുന്നുണ്ട് മാത്രമല്ല നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഹോം തിയറ്റർ എക്സ്പീരിയൻസ് വീട്ടിൽ തന്നെ ഒരു കംപ്ലീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫോർക്കെ വീഡിയോസ് ഓഡിയോസ് ആണെങ്കിലും പിന്നെ ഡോൾബി അറ്റംസ്സ് ആണെങ്കിലും ത്രീഡി സൗണ്ടുകളാണെങ്കിലും നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമ്മേഴ്സ്ഡ് ആയിട്ടിള്ള ഒരു ആ ഒരു സറൗണ്ടിങ്ങിലോട്ട് ഇമ്മേഴ്സ് ആവുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഇത് തരുന്നത് മാത്രമല്ല ഇതിൻ്റെ അടുത്തൊരു ക്വാളിറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ സ്പീക്കർ ഡ്രൈവേഴ്സിൻ്റെ ഡയാമീറ്ററാണ് വളരെ മികച്ച ക്വാളിറ്റിയോട് കൂടീട്ടും നല്ല ഒരു ഏസ്തെററ്റിക് ഡിസൈനോടും കൂടിയിട്ടുമാണ് ഇതിൻ്റെ പ്രൊഡക്ട്സ് മാർക്ക് വരുന്നത് മാത്രമല്ല ഇതിപ്പോൾ നമുക്ക് മൂന്ന് വേരിയെന്റിൽ വൈറ്റ് ബ്ലാക്ക് പിന്നെ നേവി ബ്ലൂ അങ്ങനെ മൂന്ന് വേരിയെന്റിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടും ഒരു ഒരു ഹോം അതായത് ഒരു വീട്ടിൽത്തന്നെ ഒരു ചെറിയൊരു മിനി തിയറ്റർ പോലെ സെറ്റ് ചെയ്യാനുള്ളൊരു ഇതിനാണെങ്കിൽ എന്തുകൊണ്ടും നമുക്കിത് വളരെ ഉചിതമായൊരു പ്രൊഡക്റ്റായിരിക്കും മാത്രമല്ല ഇതിന് ഒരു ഫ്രണ്ടിൽ നമുക്കൊരു സൗണ്ട് ബാർ പിന്നെ സറൗണ്ടിങ്ങ് സ്പീക്കേർസ് ഒരാറെണ്ണം സബ് വൂഫ് വൂഫർ അങ്ങനെ ഒരു ടോട്ടൽ ഒരു സൗണ്ട് പാക്കേജാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് പിന്നെ പിന്നെ പറയുന്നെങ്കിൽ ഇതിൻ്റെ ആ ഒരു മറ്റേ സോഫ്റ്റ്വെയർ ക്വാളിറ്റീസ് ആണ് അതായത് ആറ് ത്രീഡി സൗണ്ടുകളെല്ലാം പ്ലേ ചെയ്യുന്ന സമയത്ത് ആറ് സ്പീക്കറിലോട്ടും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സിഗ്നൽസാണ് കൊടുക്കുന്നത്